എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ലാ എന്ന ഒരു സന്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ കാർഡ് ബന്ധിപ്പിക്കുകയെങ്കിൽ എന്ത് സംഭവമാണ് വേണ്ടത് എന്നുള്ള നിർദ്ദേശം കിട്ടിയെങ്കിൽ നന്നായിരുന്നു അത് അതിനെ ബാങ്കിൽ നിന്നും തരേണ്ട മറ്റു അയക്കുവാൻ വേണ്ടി എന്താണ് കൊണ്ടുവരേണ്ടത് റേഷൻ കാർഡോ ആധാർ റേഷൻ കാർഡോ ഐഡൻറ്റിറ്റി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്താണ് വേണ്ടത് എന്നുള്ള നിർദ്ദേശം തരുമാറാകണം സന്ദേശത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പൊതുവായിട്ട് ബന്ധിപ്പിക്കുവാൻ ആയിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ എത്രയും വേഗം തരു മാറണം ഈ ഈ ഈ മെസ്സേജ് ഏതാനും ദിവസങ്ങൾ ആയതേയുള്ളു ഞങ്ങൾക്ക് കിട്ടിയിട്ട് അതിനു വേണ്ട ഒരു നിർദ്ദേശം തരുമാറാകണം എന്നുള്ളതാണ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശം ഏതാനും ദിവസങ്ങൾക്കു മുൻപാണ് കിട്ടിയത് അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് ബാങ്കിൽ നിന്ന് ഇനി നമുക്ക് സബ്സിഡി കിട്ടുവാനും ഉള്ള നിർദ്ദേശങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ബാങ്ക് ആധാർ ചോദിക്കുന്നത് അതിൽ ഫിൽ ചെയ്യാൻ വേണ്ടി എന്തു സംഭവം ആണ് വേണ്ടത് എന്ന് ഉള്ള നിർദ്ദേശം തരുമാറാകേണം എന്നു അഭ്യർത്ഥിക്കുന്നത് എത്ര എത്ര ബാങ്കുമായിട്ട് ബന്ധിക്കുവാനുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാകണം